ഹലോ ഇത് ഊബർ ഏജൻസി അല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം മറ്റൊന്നും അല്ല നിങ്ങളുടെ ഭർത്താവ് ഡ്രൈവറ് ഒന്ന് ഉണ്ട് മാസ്ക്ക് ഒന്നും ധരിക്കാണ്ട് ആയിരുന്നു ഈ കൊറോണക്കാലത്ത് മാസ്ക്ക് ഒന്നും ധരിക്കാണ്ട് ആണ് അയാൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് മാസ്ക്ക് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചില്ല എന്നിട്ട് ഒന്നും കണക്ക് ആക്കിയില്ല മൈൻ്റേ ചെയ്തില്ല വാക്കിന് ഒരു വില കൂടിയും കൽപ്പിച്ചിട്ടില്ല എന്നിട്ട് പിന്നെ ഈ കൊറോണക്കാലത്ത് ഇങ്ങനെ മാസ്ക്ക് ധരിക്കാണ്ട് ഇരുന്നാൽ മറ്റു കസ്റ്റമേഴ്സിന് ആണ് ബുദ്ധിമുട്ട് ഒരു സേഫ്റ്റിയും ഇല്ല പിന്ന ഒരു വൃത്തിയും ഇല്ല അതാണ് അപ്പം ഇതൊക്ക ഒന്ന് എൻ്റെ വാക്കുകളൊന്ന് കണക്കാക്കണം പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ്